ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് പക്ഷേ നമ്മളിപ്പോൾ ഈ കൊറോണ ടൈമിൽ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോഴും ഓൺലൈൻ ക്ലാസ്സ് അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റിങ്ങോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പലപ്പോഴും അറിയാതെ തന്നെ കൈ തട്ടി മൈക്ക് ഓഫാക്കി പോകും അതോടെ നമ്മൾ പിടിച്ച് പോകും വീഡിയോടെ ഇത് ഓണാക്കി വച്ച് പോകും അപ്പോഴാണ് വീട്ടിലെ ശബ്ദം കേൾക്കുമ്പോഴാണ് അതേക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരുന്നത് തെറ്റി പോയല്ലോയെന്ന് ഇത് ആദ്യമാദ്യം അവസരങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഊഹമില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊരു മനസ്സിലായി വരുന്നത് ഇതെപ്പോഴും കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല ഇത് ആ ഒരു സമയം കൊറോണയുടെ ആ ടൈമിലാണിങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഒരു ക്ലാസ്സ് പിള്ളേർക്കെടുക്കുക ആ പിള്ളേരോട് കാര്യങ്ങൾ പറയുക അതിൻ്റെ അന്നേരം വീഡിയോ ഓണാക്കുക വീഡിയോ ഓഫ് ചെയ്യണം മൈക്ക് ഓണാക്കണം എങ്ങനെ എന്താ നമുക്ക് പഠിച്ചു വരുന്നതേ ഉള്ളു ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ക്ലാസ്സെടുക്കുമ്പോഴാണെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് പോയെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ സംസാരവും അവർ പറയുന്നതുമെല്ലാം ആ വീഡിയോയിൽ കിട്ടുക പിന്നെ അതോർത്ത് ചിരിക്കുക ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് അത് നല്ല ഒരു കാര്യമാണ് ഒരു വശത്തുകൂടി നോക്കുമ്പോൾ ഈ മൈക്ക് ഓഫ് ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് മൈക്കിൽക്കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ബോധ്യമാകത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവരെടുക്കുന്ന ആ ക്ലാസ്സ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് അതൊരു കേട്ടിരിക്കുമ്പം നമുക്ക് നല്ലൊരനുഭവമാണ് അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ ആ പിള്ളേരത് കേൽക്കുമ്പോഴും അവർക്കും നമ്മൾക്കും ഒരു സന്തോഷം ആ പിള്ളേർക്ക് ഒരു നല്ലൊരു അനുഭൂതിയാണ് അവിടെ ഉണ്ടാകുന്നത് പക്ഷേ അത് നല്ല ഒരവസ്ഥയാണ് ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇപ്പം പുറം പുറം രാജ്യങ്ങളിൽ ബന്ധം ജോലി ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മകനെ സംബന്ധിച്ച് തന്നെ പുറത്ത് ജോലിയാണ് അവനുമായിട്ട് വീഡിയോ കോളിലാണെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പം നമുക്ക് അവൻ അവിടെയിരിക്കുന്നു നമ്മൾ ഇവിടെയിരിക്കുന്നു ആ നിമിഷം തന്നെയുള്ള കാര്യങ്ങളറിയാം അവനെ കാണാം എന്നെ കാണാം അങ്ങനെ നമുക്കുള്ള ആ ഒരു രീതീലേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് എന്തെന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്ത നല്ലൊരു സന്തോഷമാണ് കിട്ടുന്നത് അന്നേരം അന്നേരം ഉള്ള ആ കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു ഇത് ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് ഈ ഒരു ഈ ആപ്പും ഈ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല നല്ലതെന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റേ പണ്ടത്തേക്കാലത്തൊന്നും ഒരു ഒന്ന് ഒരു കത്തെഴുതി വിടുക അല്ലെങ്കിലൊരു ഫോൺ ചെയ്ത് മറ്റുള്ള വീട്ടിലേക്ക് വിളിച്ചു പിന്നെ അവർ പറഞ്ഞു അങ്ങനെ ഓടിച്ചെന്ന് അന്നൊന്നും ഫോണുമില്ല ഒന്നും അറിയാനും പറ്റത്തില്ല ഒരു ലെറ്ററ് വരുമ്പോഴാണത് വായിച്ചറിഞ്ഞും അതിൻ്റെ റീപ്ലേ കൊടുത്തുമൊക്കെ നമ്മൾ കാര്യങ്ങളറിയുന്നത് ഇന്നത്തെ ഇപ്പം ഈ കമ്പ്യൂട്ടർ കാലമായപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് പെട്ടന്ന് ആ നിമിഷം തന്നെ എല്ലാ കാര്യവും അറിയാം എന്ത് ചെയ്യാണമെന്നുള്ളത് അന്നേരം തന്നെ പറഞ്ഞു കൊടുക്കാം ഇപ്പം നിസ്സാരം ഒരു മൊബൈലിൽ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസിടുക അവിടെ തെറ്റിപ്പോയെങ്കിൽ ഉടനെ തന്നെ മക്കളാണെങ്കിലും ഉടനെ വിളിച്ച് പറയുക അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും അതെല്ലാം നമ്മുടെ ഈ ഒരു ഫോൺ വഴി ഉള്ളതായത് കൊണ്ട് അതൊക്കെ ഭയങ്കര കണ്ടുപിടുത്തം ആ ഒരു ഇതിലേക്ക് നമ്മൾ അത്രമേൽ വളർന്നിട്ടുണ്ട് അത് നല്ല ഒരു അനുഗ്രഹമാണ് ഇപ്പോഴത്തെ ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾക്ക് കൂടുതലായിട്ടറിയില്ല പക്ഷേ നമ്മുടെ കുഞ്ഞ് തലമുറകൾക്കിത് നല്ലവണം അറിയാം അവരിതെല്ലാം നമ്മളവരോട് ചോദിച്ചാൽ മതി അവർ ആ സെക്കൻ്റിൽ തന്നെ അത് കാണിച്ച് നമുക്ക് മനസ്സിലാക്കിത്തരും അവരിതൊന്നും പഠിച്ചതല്ലെങ്കിലും അവർക്കതിനുള്ള ആ കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല അറിവും പ്രാപ്തിയും ഉണ്ട് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കാണ് ഒന്നും അറിയാത്ത ഇതിന് ഇതിലും പ്രായമുള്ള മാതാപിതാക്കൾ വരുമ്പം അവർക്ക് ഇതിനാലൊന്നും അറിയുകയില്ല പിന്നെ ഫോൺ ബെല്ലടിക്കും അതൊന്നെടുക്കാൻ മാത്രം ചിലപ്പം ചില മാതാപിതാക്കൾക്കറിയാം ചിലർക്ക് ഇത് ചെയ്യാനും വിളിക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാനും ഫേസ്ബുക്ക് നോക്കാനും ഫേസ്ബുക്കിലിടാനും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഇത് നല്ല ഒരു കാര്യമാണ് ഈ വീഡിയോയും ഇങ്ങനെ ഇടുന്നതും പിന്നെ ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഫോട്ടോ വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു കാര്യം വേണം ഉടനെ തന്നെ ഒരു കോപ്പി വേണം ഉടനെ തന്നെ അതങ്ങോട്ടയച്ചു അത് നമ്മൾ ഫോണിൽ പിടിച്ചു ഉടനെ അത് അയച്ചു കൊടുത്തു അവർക്കത് ഉടനെ ഒരുപകാരമായി അങ്ങനെ ഇങ്ങനെ പാസ്സ്പോർട്ടോ ഏതിനാണെങ്കിലും എന്തിനും എല്ലാം ഉപകരിക്കുന്ന ഒരു നല്ല യുഗത്തിലേക്കാണ് നമ്മളിപ്പം പോയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ കുറേ പിള്ളേരിത് മൂലം എന്തിനു ഉപകരിച്ച് കുറേ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുംകൂടിയുണ്ട് അത് വലിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കുഞ്ഞു തലമുറക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല വശമുണ്ട് അവർ ആ തെറ്റിലേക്ക് വഴുതി പോകാനുള്ള സാധ്യത ഇതു മൂലമുണ്ട് ഇതും കമ്പ്യൂട്ടറും ഒക്കെ ചെയ്യാനവർക്കറിയാം പക്ഷേ അവർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മളെപ്പോഴും നോക്കിയിരിക്കണം മാതാപിതാക്കളത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയത്തില്ല ഒരു വശത്ത് പക്ഷേ മാതാപിതാക്കളെ കാണാതെ മുറിക്കകത്ത് കയറിയിരുന്ന് ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അവരിതിലേക്ക് വഴുതി വീണ് അവരുടെ ജീവിതം പാഴായിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം